നമുക്കിവിടെ കൂടുതൽ മുസ്ലിംങ്ങളും ഹിന്ദുക്കളുമാണ് കൂടുതലുള്ളത് പിന്നേ ഓരോ ഓരോ സാ അങ്ങനെയൊന്നുമില്ല ഇപ്പം എല്ലാം ഫ്ലാറ്റ് സമ്പ്രദായമായതു കൊണ്ട് പിന്നെ എല്ലാവരും കാരണം അടുത്തടുത്ത് മോ നമുക്ക് പള്ളികളിൽ പോകാം നിസ്ക്കരിക്കാനുള്ള ഇതുണ്ട് അതേപോലെ തന്നെ ക്ഷേത്രങ്ങളുണ്ട് ക്രിസ്ത്യൻ പള്ളികളുണ്ട് അപ്പം പിന്നെ കുഴപ്പമില്ല ഇപ്പം ജോലിക്ക് വന്ന് നിൽക്കുന്നവർക്കും എല്ലായിടത്തും പോകാം നമുക്ക് നമ്മുടെ നാട് നമ്മുടെ വീട് പോലെ അവിടെ നമ്മൾ എത്ര കാലം നിൽക്കുന്നോ അതേപോലെ ഇതാക്കാം അപ്പം ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ ഭാഗത്ത് മുസ്ലിം പള്ളിയും ക്രിസ്ത്യൻ ക്രിസ്ത്യൻ കുറവാണ് എന്നാലുമുണ്ട് പക്ഷെ കൂടുതലും ഹിന്ദുക്കളും മുസ്ലീങ്ങളാണ് കോഴിക്കോട് ഭാഗത്ത് കൂടുതലുള്ളത്